കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് കൃഷിനെ ഭയങ്കരമായി പ്രതികൂലമായി ബാധിക്കുന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഓണ വിപണി ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മളെല്ലാവരും ഈ വാഴ അതേ പോലെ പച്ചക്കറികൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നടുന്നത് അപ്പോൾ ഈ ഓണത്തിന് മുന്നേ നമുക്ക് ചിങ്ങത്തിലാണ് ഓണം ഉ ണ്ടാവുക അതിന് മുന്നേ കർക്കിടകം എന്ന് പറയുന്നൊരു മാസം ഉണ്ട് അതിൽ കനത്ത മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഓണത്തിന് വേണ്ടി തയ്യാറാക്കി വച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നശിച്ചു പോകും അപ്പം അതിൽ നിന്ന് നമുക്കൊരു നഷ്ടപരിഹാരം കിട്ടുക എന്ന് പറയണത് വളരെ തുച്ഛമായിട്ടുള്ള നഷ്ടപരിഹാരമാണ് കിട്ടുക അപ്പോൾ അതും ഒരു പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് പിന്നെ അല്ലാതിപ്പം നമ്മളൊരു വീട്ടിൽ ഒരു കൃഷി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മെയ്നായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇലചുരുളൻ രോഗം അല്ലാന്നുണ്ടെങ്കിൽ കീടങ്ങളുടെ ശല്യം ഇതൊക്കെയാണ് വരിക അപ്പം ചെറിയ രീതിയിൽ ചെയ്യുന്ന കർഷകരാണെന്നുണ്ടെങ്കിൽ അവരതിന് വല്ല ജൈവ വളമോ അല്ലെ ന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വേപ്പിൻ പിണ്ണാക്കിൻ്റെ വെള്ളമോ സോപ്പ് ലായനി എന്തെങ്കിലും തളിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം വളരെ വിപുലമായി കൃഷി ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ കാലാവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതായത് അവർ ലക്ഷ്യം വച്ച വിപണി അതിലേക്ക് ആ സാധനങ്ങൾ എത്തൂല അതിന് മുന്നേ തന്നെ എന്തെങ്കിലും മഴ കാരണോ അല്ലെങ്കിൽ തീരെ വെള്ളം കിട്ടാത്തത് കാരണമോ കൃഷി നശിക്കുകയാണ് ഉണ്ടാവുക